ഹലോ ആ അതേ അതേ അതേ ആ ആ ആ ആ ആ കളിപ്പാട്ടം ആ ആ അത് ഊഞ്ഞാലൊക്കെ തടീടെയാണോ വേണ്ടത് ആണല്ലേ തടി ഊഞ്ഞാല് പിന്നെ അലമാര വേണം പിന്നേ പിള്ളേരുടെ കളി സാധനങ്ങള് വെക്കുന്ന ഇത് ഇതെല്ലാം വേണം അല്ലെ അപ്പം ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒരൂ അൻപതിനായിരത്തോളവാകും പിന്നെ വീട് വന്ന് കണ്ടാലേ പറയാൻ പറ്റൂ അതിന്റെ റെ എന്തോരം അളവ് വേണം എങ്ങനെയാണ് അലമാരയുടെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് അളവെടുത്താലെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വന്ന് അളന്ന് നോക്കിയിട്ട് പറയാം ഊഞ്ഞാലൊക്കെ എങ്ങനെ എവിടെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെയൊക്കെ അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞാന് ആ സ്ഥലം ഊഞ്ഞാല് സെറ്റ് സ്ഥലം വേണം നമ്മൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ ഒന്ന് കളി സാധനം വെക്കണം ബുക്ക് പുസ്തകം വെക്ക് എല്ലാം വെക്കണ്ടേ

ആ ഹാ ഹാ അപ്പം അത് നമുക്ക് കൊണ്ട് റൂം ഒന്ന് കാണാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഒരു ഏകദേശ ഐഡ്യ ആണ് ഞാനിപ്പം പറഞ്ഞേക്കുന്നത് ഞാൻ വന്ന് റൂം നോക്കിയിട്ടേ അളന്ന് നോക്കിയിട്ട് പറയാം ഇത് എവിടെ ആയിട്ടാണ് വീട് വരുന്നത്

ആ ഓക്കെ ഓക്കെ അപ്പം ഞാനെന്നാല് എന്നത്തേനാണ് ഞാന് അങ്ങോട്ട് ഇറങ്ങണം അവിടെ വീട്ടിൽ ഉണ്ടാകുമോ നാളേ മറ്റന്നാള് ഞാൻ ഇറങ്ങിയാൽ ആ ആ ആ ആ ഓക്കെ ഓക്കെ ശരി ആ

ആ ഓക്കെ ആ ഓക്കെ നമ്മള് ഇപ്പം തടിയിൽ ചെയ്യുന്നതെ ഈട്ട്ത്തടികളുണ്ട് തേക്ക് തടി ഉണ്ട് പിന്നെ സാധാ ഇച്ചിരി ലോക്കൽ തടിയുണ്ട് അപ്പം നിങ്ങളുടെ ആ ഇതൂടെ അനുസരിച്ചിട്ട് വേണം നമുക്ക് ആ തീർച്ഛയായിട്ടുണ്ട് തീർച്ഛയായിട്ടുണ്ട് ഓ തടിയുടെ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും അപ്പം ഞാനേതായാലും വന്ന് നോക്കട്ടെ ആ ശരി ശരി ആ ആ ഈട്ടിത്തടിക്ക് വിലയാകും പക്ഷേ നമ്മുടെ ആ സ്പേസ് എന്തേരം നിങ്ങൾക്ക് അലമാരിയുടെ അളവ് അളവുണ്ടല്ലൊ അളവില്ലാതെനിക്കൊന്നും പറയാൻ പറ്റത്തിലല്ലോ അളവെടുക്കണം നമുക്ക് വേണ്ട എന്തോരം സ്പേസ് അലമാരിക്ക് പോകും അതിന് എന്തോരം ഒക്കെ തടി വേണം നോക്കിയിട്ട് ആ ആ ആ ഹൈറ്റൊക്കെ നോക്കണം അതിന്റെ എല്ലാം നോക്കണമല്ലോ നോക്കിയിട്ട് പറയാൻ പറയാം അപ്പോൾ എന്നെ ഒന്ന് ഒന്നോർമ്മിപ്പിക്കണേ ഞാൻ ഇറങ്ങാം അടുത്ത ആഴ്ച്ചയില് ആ ആ ശരി ശരി